എനിക്ക് ഇഷ്ടപ്പെട്ടത് തിരുവാതിര നക്ഷത്രം ഇഷ്ടമാണ് കാരണം നല്ല നക്ഷത്രമാണ് അങ്ങനെ ആർക്കും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊക്കെ ആയിട്ട് കേട്ടിട്ടില്ല നല്ല നക്ഷത്രമാണ് അത് കൊണ്ട് അത് ഇഷ്ടമാണ് പിന്നെ എന്തുവാണ് പിന്നെ വേ ആർക്കും എൽ കൂട് ഞാൻ കൂടുതലും കേട്ടിട്ടുണ്ട് അങ്ങനെ ഈ നാളുകാർക്ക് വേറെ പ്രശ്ന കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ കുറച്ച് കേട്ടിട്ടൊക്കെയുണ്ട് അപ്പം അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല നാളായത് കൊണ്ടും നാൾ ഇഷ്ടമാണ് എൻ്റെ ഫാമിലിയിൽ ഒക്കെ അങ്ങനത്തെ ആ ആളക് നാൾ ഉള്ള ആൾക്കാർ ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെയാണ് അങ്ങനെ ആ നാളിനോട് വലിയ വിരോധം ഒന്നുമില്ല ഉള്ള ഉള്ളതിലിഷ്ടം എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ഇഷ്ടം ആവാനുള്ള കാരണം